എൻ്റെ സഹോദരിയും അല്ലെങ്കിൽ മകൾ സുഹൃത്ത് എന്നിവരെല്ലാവരും എത്രത്തോളം വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പരമാവധി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമെന്നു പറയുന്നത് ഇനി വരുന്ന കാലയളവിലും മറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് വിദ്യാഭ്യാസം അതായത് ബാക്കി എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമാണെന്നു പറഞ്ഞാലും വിദ്യാഭ്യാസമില്ല എന്നു പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടു തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെയെന്നല്ല പണ്ടത്തെയും സർക്കാർ പ്രാഥമിക വിദ്യാഭ്യാസം അതായത് ആദ്യത്തെ പതിനാലു വർഷത്തെ സോറി പതിനാല് വയസ്സുവരെയുള്ള വിദ്യാഭ്യാസമെന്നു പറയുന്നത് സാർവത്രികവും അതുപോലെതന്നെ നിർബന്ധിത വിദ്യഭ്യാസം ആക്കിയത് ഏതൊരു മേഖലയിൽ എത്തിപ്പെട്ടാലും അല്ലെങ്കിൽ ഏതൊരു പ്രായത്തിലാണെങ്കിൽപ്പോലും നമുക്ക് ഇന്ന് ഈ മേഖലയിൽ ആല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും വിവരങ്ങളും മറ്റും മനസ്സിലാക്കാനും അത് അനുസരിച്ച് ജീവിതം ധന്യപൂർണ്ണമാക്കുവാനും നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളു അതുപോലെതന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നു തന്നെയാണ് ഞാൻ മറുപടി പറയുക കാരണം ഈ ഒരു കാലഘട്ടത്തിൽപ്പോലും നിലനിൽക്കുന്നതാണ് പണ്ടുള്ള കാലഘട്ടത്തിലെന്നു പറയുന്നത് ഒരു പതിനെട്ട് പതിനാറ് വയസ്സിനോടകം പെൺകുട്ടികളെ പഠിക്കുന്നതിൽ നിന്നും വേർതിരിപ്പിച്ച് അവരെ അതുപോലെ അവരെ വിവാഹം കഴിച്ച് ആ അയക്കുകയും മറ്റുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതായത് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലാർക്കും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല അവർ വിദ്യ അഭ്യസിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു ഒരു ഒരു ആളുകളായിരുന്നു അല്ലെങ്കിൽ ഒരു ജനതയായിരുന്നു നിലവിലുണ്ടാരുന്നത് എന്നാലിന്നതിന് നിരവധി മാറ്റങ്ങൾ വന്നുവെങ്കിലും ഇപ്പോഴും ചെറിയൊരു സമ്പ്രദായം നിലവിൽ നിൽക്കുന്നുണ്ട് പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കുന്നത് അവരുടെയൊരു സമയം പോക്കിനുവേണ്ടി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ക്രമേണ കുറവ് ജനത എങ്കിലും ഇന്നും നിലവിലുണ്ടെന്ന് പറയാൻ സാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ തന്നെയാണ് കൂടുതലായും വിദ്യ അഭ്യസിക്കേണ്ടത് അതായത് ഏതെങ്കിലുമൊരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊരു അവസ്ഥയിൽ അവരൊറ്റപ്പെട്ടു പോവുന്നുണ്ടെങ്കിൽപ്പോലും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലിയിൽ പ്രവേശിക്കാനും അതുപോലെതന്നെ ആ ജോലിയിൽ പ്രവേശിച്ച് തങ്ങളുടെ ജീവിതം തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാക്കുവാനും അവർക്കൊരു പ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ അവരുറപ്പായിട്ടും വിദ്യ അഭ്യസിക്കുന്നതിലൂടെ അത് സാധ്യമാവുന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവരെ സംബന്ധിച്ച് ഒരു ജോലി സാധ്യത എന്നു പറയുന്നത് വളരെ വിരളമായിക്കൊണ്ടിരിക്കുന്നതാണ് വിദ്യാഭ്യാസമില്ലെങ്കിൽ ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് നമുക്ക് പ്രവേശനമില്ലെന്ന് പറയുന്നപോലെതന്നെ പല ജോലികളിലേക്കും നമുക്ക് ഉള്ള പ്രവേശനം തടയാനായിട്ട് അതിനു കാരണമാകും അതുപോലെതന്നെ അതുകൊണ്ടാണ് സഹോദരി അല്ലെങ്കിൽ മകൾ അതുപോലെതന്നെ പെൺകുട്ടികൾ എല്ലാവരും വിദ്യ അഭ്യസിക്കുന്നത് എൻ്റെ പങ്ക് വളരെ വലുതാണെന്നു പറയുന്നത് ജനിച്ച ഉടനെ അമ്മ നോക്കും അല്ലെങ്കിൽ അച്ഛൻ നോക്കുമെന്നു പറയുന്നല്ലോ അതുപോലെതന്നൊരു പതിനെട്ടു വയസ്സിന് ശേഷം വിവാഹത്തിനുശേഷം ഹസ്ബൻഡ് നോക്കുമെന്ന ധാരണയിലിപ്പോഴും പെൺകുട്ടികൾ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് ഒരു സത്യം തന്നെയാണ് എങ്കിലും ജീവിതകാലം അവസാനം വരെ നമ്മളെ ഒരാൾ നോക്കുമെന്ന് അല്ലെങ്കിൽ ഒരാളുടെ ചിലവിൽ നമ്മൾ സുരക്ഷിതയാണെന്നു ചിന്തിക്കുന്നതിലും സ്വയം ഒരു ജോലിയിൽ പ്രവേശിക്കുകയും അതുവഴി ഞാൻ എന്നെത്തന്നെ സുരക്ഷിതയാക്കിയും എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൽ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ ജോലിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കു തന്നെ നോക്കാൻ സാധിക്കുമെന്നൊരു ഒരവബോധം അല്ലെങ്കിലൊരു വിശ്വാസം പെൺകുട്ടികൾക്ക് ഉണ്ടാകണമെങ്കിൽ ആ പെൺകുട്ടി എന്തായാലുമൊരു ജോലിയോ ജോലിയുടെ ഉടമ തന്നെ ആയിരിക്കണം ആ ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്നു പറയുന്നത് വിദ്യാഭ്യാസം തന്നെ ആയിരിക്കും